ആ സഞ്ജീവനി ആയുർവേദ സെൻ്ററിലേയ്ക്ക് സ്വാഗതം മാഡം മാഡത്തിന് എന്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ പറയൂ മാഡം ബാക്കി എന്താണ് ചെയ്യേണ്ടത് ഞാൻ ആ അത് പറയൂ മാഡം അതിന് ഞങ്ങൾ എ എന്താണ് മാഡത്തിന് എന്ത് ട്രീറ്റ്മെൻറ്റ് ആണ് ഇവിടെ രണ്ട് മൂന്ന് ദിവസം മാഡം നിൽക്കാൻ സാധിക്കുമോ എൻ അങ്ങനെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം ആ മാഡം ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭാഗം ആയിട്ട് ഓരോ ദിവസം ഓരോ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഉഴിച്ചിലും പിഴിച്ചിലും ഉണ്ടാകും പിന്നെ അടുത്ത ദിവസം ആണെങ്കിൽ സ്റ്റീം ബാത്തിംഗ് അടുത്ത ദിവസം ശതാവരി അശ്വഗന്ധ ചെന്നിനായകം എന്നിവ ചേർന്ന മിശ്രിതം കാൽ മുട്ടിൽ ഇട്ട് അത് മസ്സാജ് ചെയ്യും പിന്നെ അടുത്ത ദിവസം കുഴമ്പ് തേച്ച് ഉള്ള കുളി അങ്ങനെ ആയിരിക്കും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മാഡം ഒരു മൂന്ന് നാല് ദിവസം ഇവിടെ താമസിക്കേണ്ടത് ആയിട്ട് വരും മാഡം അതിന് തയ്യാറാണോ ഓ മാഡം പ്രധാനമായും ഈ മുട്ട് തേയ്മാനം പ്രായം ചെന്നവരുടെ രോഗം ആയിട്ട് ആണ് എല്ലാവരും പറയുന്നത് പക്ഷേ നമ്മുടെ ഈ മുപ്പത് വയസ്സ് കഴിയുമ്പോൾത്തന്നെ നമുക്ക് ഈ എല്ലിൻ്റെ തേയ്മാനം തുടങ്ങും അപ്പോൾ അത് എങ്ങനെയാ ഉണ്ടാകുന്നേന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ ജീവിത ശൈലിയിൽ വന്ന തെറ്റായ രീതികൾ തന്നെ ആണ് ഇതിന് കാരണം മാഡം എല്ലിൻ്റെ തേയ്മാനം പ്രായം കൂടുമ്പോൾ വരുന്ന രോഗം ആണെന്ന് ആണ് എല്ലാവരും കരുതുന്നത് പക്ഷേ നമ്മൾ അധികം ശരീര ഭാരം നിയന്ത്രിക്കുക ആണ് വേണ്ടത് അത് വഴി നമുക്ക് ഊർജ്ജസ്വലമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ആരോഗ്യകരമായ ഭക്ഷണം ശീലിക്കണം ഇത് എല്ലാം ഇവിടുന്ന് ഞങ്ങൾ മാഡത്തിന് പറഞ്ഞ് തരുന്നത് ആണ് ആ മാഡം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ അത് എന്ന് ആണ് വരുന്നതെന്നും കൂടി പറയാമോ ആ ആ ശരി എങ്കിൽ മാഡം